ആ ആ ആ എ എത്ര വയസ്സുള്ള കുട്ടിയാണ് ആ ഉം ഉം റേറ്റ് ഒക്കെ എങ്ങനെയാണ് നോക്കുന്നത് സ്റ്റാർട്ടിങ്ങ് ഫൈവ് ഹൺഡ്രഡ് മുതല് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഫൈവ് ഹൺഡ്രഡിൻറെ ആകുമ്പോൾ ഒരു ആറ് മാസം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ നൂലൊക്കെ ഇങ്ങനെ പൊന്തിയൊക്കെ പോവും പോയിക്കോണ്ടിരിക്കും നല്ലൊരു ബാഗ് ഒക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നുമേനെ എണ്ണൂറോ തൗസൻഡ് ഒക്കെ വരും ഏ കാ കളറുകൾ എല്ലാ കളറുകളൊക്കെ ഉണ്ട് ഇപ്പം രണ്ടിൽ പഠിക്കുന്ന കുട്ടി ആവുമ്പോൾ അവർക്ക് കൂടുതൽ ഡോറ സ്പൈഡർമാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കില്ലേ ഇഷ്ടപ്പെടുക ആ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും ആ കുട്ടീനെ കൊണ്ടുവന്ന് കടയിൽ ഷോപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ അതൊക്കെ കാണിച്ച് തരാമായിരുന്നു അല്ലെങ്കിൽ വാട്സ് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതിയോ ഫോട്ടോസ് ഒക്കെ

അതിന് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ഒക്കെയാവും പിന്നെ തൗസൻഡിന് ഒക്കെ എടുക്കുന്ന ഇതിന് ബാഗിനൊക്കെ ഒരു കുട ഫ്രീ ഉണ്ടാവും അല്ല കുട്ടികളുടെ കുടകളില്ലേ ഇപ്പോൾ ഓരോ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഓരോ ഡോറ എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളുടെ ഒക്കെ ഫ്രീ ഉണ്ടാവും തൗസൻഡിൻറെ ആണ് കേട്ടോ അല്ലാണ്ട് എയിറ്റ് ഹൺഡ്രഡിൻറെയൊന്നും കിട്ടില്ല തൗസൻഡ് അത് സ്പെഷ്യൽ ഓഫർ ആണ് വേറെ ഓഫേഴ്സ് ഒന്നുമില്ല പിന്നെ ടു തൗസൻഡ് അങ്ങനത്തെ മേളിലൊക്കെ ആവുമ്പോൾ അത്ര റേഞ്ച് ആവുമ്പോൾ വലിയ ആൾക്കാരുടെ ബാഗുകളായിട്ട് മാറി കുഞ്ഞി പിള്ളാരെ തൗസൻഡ് വരേയുള്ളതേ ഉള്ളൂ ഓക്കെ ഓക്കെ പിന്നെ വാട്ടർ ബോട്ടിൽ അങ്ങനത്തേത് ഇപ്പോൾ വേണോ

ഓക്കെ ഓക്കെ ടിഫിൻ ബോക്സ് ഒക്കെ പുതിയത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ആ ഓക്കെ ഓക്കെ വാട്സപ്പ് ചെയ്ത് തന്നേക്കാം ഈ നമ്പറിലേക്ക്